പാലും പാലുത്പന്നങ്ങളും എന്നുള്ള ഒരു ക്ലാസ്സാണ് കൂടിയ കൂടാൻ സാധിച്ചിട്ടുള്ളത് പ അങ്ങനെ കൂടാൻ സാധിച്ചയിൽ നിന്ന് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ഐസ് ക്രീം ചോക്ലേറ്റ് പനീർ പനീറുണ്ടാക്കിയിട്ട് പനീർ കൊണ്ടുള്ള കറിയും അങ്ങനെയുള്ള സാനങ്ങളുണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് നെ രസഗുള ഗുലാബ് ജമൂൻ ഇതൊക്കെ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് പാലിൻ്റെ പാല് നേരിട്ട് ഉപയോഗിക്കാൻ താത്പര്യമില്ലാത്തവർക്കു പോലും ഈ ഉത്പന്നങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാവുന്നതാണ് അതുപോലെതന്നെ ബിസിനസ്സ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ആളുകളിലേക്ക് പാല് വിവിധ തരത്തിലുള്ള ഉൽ ഉത്പന്നങ്ങളായിട്ട് കച്ചവടം നടത്താനൊക്കെ ആയിട്ടു സാധിക്കും പിന്നെ പനീർ വളരെ പോഷകസമൃദ്ധമായ ഒരു വസ്തുവാണ് അപ്പം നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിലും പനീർ ആരോഗ്യം കിട്ടാനും രോഗപ്രതിരോധശേഷി ഒക്കെ കൂടുതൽ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പനീർ പിന്നെ നമുക്ക് കൂൾ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് ലെസ്സി ഉപയോഗിക്കാൻ പറ്റും അതിനകത്തൊത്തിരി കെമിക്കലൊന്നുമില്ല കളേഴ്സ്സില്ല ഇങ്ങനെയൊക്കെ ഐസ് ക്രീം പ്യുവറായിട്ട് ഐസ് ക്രീം ഉണ്ടാക്കുന്ന പാലിൽ നിന്നുണ്ടാക്കുന്ന ഐസ് ക്രീം ഒത്തിരി നല്ലതാണ് അപ്പം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പാലും പാലുത്പന്നങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ചവരുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് ഉള്ള ഒരു പാചക ക്ലാസ്സായിരുന്നു അത് അപ്പം ഈ പാല് ഈ പാലുത്പന്ന ഈ പാചക ക്ലാസ്സിൽ നിന്നാണ് പാലുകൊണ്ട് കൊണ്ടുള്ള ചോക്ലേറ്റ് ചോക്ലേറ്റ് പൗഡറും പാലുമൊക്കെ മിക്സ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഐസ് ക്രീമൊക്കെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് ശുദ്ധമല്ലാത്ത വെള്ളമൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഐസ് ക്രീമിനെക്കാളും പാല് നമുക്കു തന്നെ വാ വാങ്ങിച്ച് അതിലേക്കു കുറച്ച് നമുക്ക് ഏലക്കയൊക്കെ പൊടിച്ചിട്ടാൽ മതി ആ എസന്സ്സിനൊക്കെ പകരം ഷുഗറും ആഡ് ചെയ്ത് പാലുണ്ടാക്കാൻ ഐസ് ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ വേറൊരു ഉത്പന്നമാണ് പനീർ അപ്പം പനീറെന്നു പറഞ്ഞാൽ ഇപ്പം നോൺ വെജിറ്റേ ഇറച്ചി മീനൊന്നും കഴിക്കാത്തവർക്കും രോഗങ്ങളായിട്ടുള്ളവർക്കൊക്കെ പനീറുപയോഗിച്ചിട്ടുള്ള കറികൾ പനീർ ഒത്തിരി ആരോഗ്യദായകമാണ് എന്നാൽ ഫാറ്റും ഒന്നുമുള്ള പ്രശ്നങ്ങളില്ലാത്തൊരു ഒരു ഭക്ഷ്യവസ്തുവാണ് പനീർ ലസ്സി ഈ വേനൽക്കാലത്തൊക്കെ ഒത്തിരി ദാഹശമനത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലസ്സി പിന്നെ മോര് മോരും വെള്ളം കറിയായിട്ട് തൈര് അപ്പം ഇങ്ങനെയുള്ള ഈ പാലുത്പന്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊരു താത്പര്യവും വിവിധതരങ്ങളായിട്ടുള്ള ഉത്പന്നങ്ങളൊണ്ടാക്കാനായിട്ട് പഠിക്കാനൊക്കെ ഈ പാചക ക്ലാസ്സിലൂടെ സാധിച്ചു പിന്നെ ഇനി വേറെ ഐറ്റംങ്ങളുണ്ടാക്കാൻ ഒത്തിരി രാസവസ്തുക്കളും കെമിക്കലും കളേഴ്സ്സും എസൻസ്സൊന്നുമില്ലാതെ ചെറിയ പലഹാരങ്ങളൊക്കെ വീടുകളിലുണ്ടാക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നതിന് ഒത്തിരി താത്പര്യമുണ്ട് അതുപോലെ അച്ചാറുകൾ ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി പിൻ മായം ചേർക്കാത്തതും കളറില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കറിയും അച്ചാറുമൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഒക്കെ ചെറുകിട വ്യവസായങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നു തോന്നുന്നു പാചകം എല്ലാ സ്ത്രീകളും തന്നെ ഇഷ്ടപ്പെടുന്നതാണ് അതൊരു കലയാണ് പിന്നെ നമ്മളീ തിയറി ആയിട്ടു പഠിക്കുന്നതു കൂടാതെ നമ്മളുടെയും കൂടി കുറച്ച് കഴിവും താത്പര്യമൊക്കെ അതിലുപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ ആരോഗ്യപരമായിട്ട് കുടുംബത്തിൽ കുടുംബത്തിൽ അവരോരുടെ ആവശ്യങ്ങളനുസരിച്ച് അവരവരുടെ അഭിപ്രായങ്ങളും കുട്ടികളുടെ ഒക്കെ ഇഷ്ടമനുസരിച്ചൊക്കെ നമുക്ക് വിവിധതരത്തിലുള്ളതായ ഭക്ഷണസാധനങ്ങളുണ്ടാക്കാൻ സാധിക്കും അപ്പം ഈ പൊതുവായിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെയാണെങ്കിൽ അതൊരു സമൂഹത്തിനു തന്നെ ആരോഗ്യം സൂക്ഷിക്കുന്നതിന് ഈ മായം ചേർത്ത ഭക്ഷണങ്ങൾ വിഷാംശം ഉള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നതിന് ഉപരി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊടുക്കുമ്പോൾ കൂടുതൽ ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് പറ്റും നമ്മുടെ കടയിലുള്ള ഭക്ഷണസാധനങ്ങൾ പഴകിയ എണ്ണ പഴകിയ ഭക്ഷണം മീറ്റ് ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പം അത് വയറിനും കേടാണ് പിന്നെ നമ്മളീ ഭാ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അല്ലെ അതിനു ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ മരുന്നിന് ആശ്രയിക്കേണ്ടി വരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലൊക്കെ കഫക്കെട്ട് വയറുവേദന ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ തന്നെ വീടുകളിൽ ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുകയും അതു വിളമ്പിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിക്കാനും കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് അല്ലെ വീട്ടിലുള്ളവരെയും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കെയ് ഇപ്പം ഈ കാലത്ത് പഞ്ചാസാരക്കൊക്കെ പകരം മറ്റു മായം ചേർത്ത ഭക്ഷണസാധനങ്ങക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ വെള്ളം ശുദ്ധമല്ല ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അടുക്കള മാലിന്യം മായ ചുറ്റുപാടുകൾ പിന്നെ കീടനാശിനികളുപയോഗിച്ച പച്ചകറികൾ അരിയിൽ പോലും ചേർത്താണ് വിടുന്നത് അപ്പോൾ നമുക്ക് പരമാവധി ഉപയോഗിക്കേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം പുറത്തു നിന്നു വാങ്ങിക്കുകയും ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളതിനെ മേടിച്ച് പാകം ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിനു നല്ലതാണ് മനസ്സിനു നല്ലതാണ് നമ്മുടെ സാമ്പത്തികവും ഒരു പരിധിവരെ നമുക്ക് സൂക്ഷിച്ചുപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും